ഹലോ ആ പറഞ്ഞോളൂ ആ ഓക്കെ പറഞ്ഞോളൂ സാർ ആ ഓക്കേ സാർ എന്നത്തേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഓക്കേ എങ്ങനെയാണ് സെവൻ സീറ്റർ വണ്ടിയാണോ സാറിന് വേണ്ടത് ആ ഓക്കേ ആ ഓക്കേ സാർ നമുക്കിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ നല്ലൊരു ഡ്രൈവേഴ്സിനെ തന്നെയാണ് എല്ലാവരെയും വെച്ചേക്കുന്നത് നമുക്കങ്ങനെ ലോക്കൽസിനെ വെച്ച് ചെയ്യാൻ പറ്റില്ല സാർ നമ്മളെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണത്

ഓക്കെ സാർ സാറ് സാറങ്ങനെ പേടിക്കണ്ട സാർ നമ്മൾ എന്തായാലും നല്ല ഡ്രൈവറിനെയെ സാറിൻറെ കൂടെ വിടൂള്ളു കാരണം നമക്കെന്താ പറയാ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് വലുത് ക്രിസ്റ്റ ആണോ സാർ ഓക്കേ ഞാൻ ക്രിസ്റ്റ അറേഞ്ച് ചെയ്ത് തരാം ഇല്ല സാറിപ്പോൾ ജസ്റ്റ് ട്രിപ്പ് പോകുന്ന രീതിയിൽ പോകുന്നയാണല്ലോ നമുക്ക് റെൻ്റും കാര്യങ്ങളും തരുന്നുണ്ട് സാറിൻ്റെ സൗകര്യത്തിനാണ് നമ്മൾ വണ്ടിയോടിക്കുന്നത് അങ്ങനത്തെ പ്രശ്നമൊന്നും നമുക്കില്ല സാർ ഇല്ല സാർ നമുക്കങ്ങനത്തെ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല സാർ ആ ഓക്കേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടികളിലൊന്നും ഇതുവരെ ഒരു കമ്പ്ലൈൻ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വന്നിട്ടില്ല സാർ

പേയ്മെൻ്റ് കാര്യങ്ങളോ ഒന്നും വേണ്ട സാർ സാറ് അത് തന്നാൽ മതി ആ ഓക്കേ സാർ

ആ ക്രിസ്റ്റ ആണ് ഫെസിലിറ്റീസ് ഇപ്പോൾ നമുക്ക് എയർ ബാഗ് കാര്യങ്ങൾ സ്റ്റീരിയോസ് വേർവേഴ്സ് എല്ലാ കാര്യങ്ങളും വരുമല്ലോ സാർ വേണ്ട സാർ നമ്മുടെ ചിലവും കാര്യങ്ങളെല്ലാം അക്കമഡേഷൻ എല്ലാം ഞങ്ങൾ തന്നെ നോക്കിക്കോളും ഓക്കെ സാർ താങ്ക് യൂ